ബോട്ട് സർവീസ് ആണോ ഓക്കെ പിന്നെ ഞങ്ങൾക്ക് മറ്റേ ഇങ്ങനെ കൊല്ലം സാമ്പ്രാണിക്കൊടി വരെ ഒന്ന് പോവണം അതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഓക്കെ ഓക്കെ ഞങ്ങൾ ഞങ്ങള ഭാഗത്ത് നിന്ന് ഒരു അഞ്ചാറ് പേർ കാണും അപ്പം എങ്ങനെയാണ് ഫുഡ്ഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്

പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് മറ്റേ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടിൽ ആവുമ്പോൾ കുറച്ച് സാമ്പ്രാണിക്കൊടി മാത്രമല്ല ബാക്കി ഉള്ള കുറച്ച് സ്ഥലത്തോട്ടൊക്കെ പോവണം ഓക്കെ നമ്മുടെ കുട്ടനാട് ഐലൻഡ് അങ് അങ്ങോട്ടൊക്കെ പോവണം ഓക്കെ അങ്ങോട്ടൊക്കെ ഓക്കെ ഓക്കെ ഞാൻ കുറച്ച് സ്ഥലത്തോട്ടൊക്കെ പോവണം കുറച്ച് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോവണം ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ ഈ എല്ലാത്തിനും കൂടി റേറ്റ് വരുന്നത് എത്രയാണ് ഓക്കെ അതിൻ്റെ പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പൻ എങ്ങനെ ആയിരിക്കും

ഓക്കെ മനസ്സിലായി ആ പിന്നെ സുര പിന്ന ഈ സുരക്ഷയുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഓക്കെ ആ ഓക്കെ ലൈഫ് ജാക്കറ്റും എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ പിന്നെ ബാക്കി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സത്യവാം സത്യവാങ്മൂലം കണക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതായത് മറ്റേ ഈ എഴുതി ഒപ്പിട്ട് തരത്തില്ലയോ അതുമാതിരി ഓക്കെ ഓക്കെ അപ്പോൾ ഫുഡ്ഡും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും വെജ് വെജ് ഓക്കെ ആണ് ഓക്കെ ആണ് അടിച്ച് കൊറിക്കാനൊക്കെ ഒക്കെ ഞങ്ങൾ ചെറുതായിട്ട് കൊണ്ടുവരാം ഓക്കെ ഹലോ

ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് എന്തെങ്കിലും ഒരു നോൺ വെജ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ ഓക്കെ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അവിടുന്ന്

ഓക്കെ യാ ആ ശരി ശരി ശരി ശരി പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഈ നമ്പറിൽ വിളിച്ചാൽ പോരേ ഓക്കെ ഓക്കെ ശരി ശരി